പാട്ട് എൻ്റെ ജീവിതത്തില് ഏറ്റവും ഘടകമായ ജീവിതഘടകമായ ഒരു കാര്യമാണ് പാട്ട് ഏത് പ്രതിസന്ധിയുണ്ടായാലും പാട്ടിനെ ഒരു കാരണവശാലും എൻ്റെ ജീവിതത്തില്നിന്ന് ഒഴിഞ്ഞുമാറാൻ പാടില്ലാ പറ്റാത്ത ഒരു കാര്യമാണ് ജോലി സമയങ്ങളിലും ജോലിചെയ്യുന്ന സ്ഥലങ്ങളിലായാലും സ്കൂളിലായാലും പാട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുകയും അതിനോടൊപ്പം തന്നെ പാട്ടിനെ മൊത്തത്തില് കൊണ്ടുപോകാനും കഴിയുന്ന ഒന്നാണ് ഏത് ജീവിത സാഹചര്യത്തിലും പാട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്കി പാട്ട് കൊണ്ടുമാത്രമേ മുന്നോട്ടുപോവാൻ സാധിക്കുകയുള്ളു പാട്ടില് കൂ പാട്ടിൽ പാട്ട് പാടി ഉണ്ടാക്കുന്ന കാശുകൊണ്ടാണ് ഞങ്ങൾ ഉപജീവനമാർഗ്ഗം കഴിയുന്നത് നല്ലരീതിയില്ത്തന്നെ പാട്ടിനെ മുന്നോട്ട് കൊണ്ടുപോവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഏത് കാലവസ്ഥയിലും എന്ത് പ്രശ്നങ്ങൾ പ്രയാസങ്ങളും തരണം ചെയ്യണമെങ്കിലും പാട്ട് എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഞാൻ വിട്ടുകളയില്ല എൻ്റെ ജീവിതത്തില് എൻറ്റൊരു കൂടപ്പിറപ്പായിത്തന്നെയാണ് ഞാൻ എൻ്റെ പാട്ടിനെ കാണുന്നത് പാട്ടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അതുപോലെതന്നെയാണ് അതുകൊണ്ട് പാട്ടിനെ ഒരിക്കലും എനിക്ക് ഏത് പ്രതിസന്ധിയുണ്ടായാലും അതിനെ എല്ലാം തരണം ചെയ്തു കൊണ്ട് പാട്ടിനെ മുന്നോട്ട് കൊണ്ടുപോവാൻ എനിക്ക് സാധിക്കുന്നു അത് സാധിക്കും അങ്ങനെ സാധിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹവും ഈ പാട്ടുകൊണ്ടാണ് ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗം കഴിയുന്നത് ഈ പാട്ടിന് എല്ലാ ജോലിയും ഒപ്പം തന്നെ ജോലിയോടൊപ്പം തുല്യമായിത്തന്നെ പാട്ട് മുന്നോട്ട് കൊണ്ടുപോവാനായിട്ട് കഴിയണം എന്നുള്ള ആഗ്രഹത്തോടുകൂടിത്തന്നെയാണ് ഞാൻ ഈ പാട്ടിനെ മുന്നോട്ട് കൊണ്ടുപോവുന്നത് പാട്ടാണ് എൻ്റെ ജീവിതത്തിലെ എനിക്കേറ്റവും സുപ്രധാനമായ ഒരു ഘടകം പാട്ട് പാടി കിട്ടണ കാശുകൊണ്ടാണ് ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗങ്ങളെല്ലാം തന്നെ ഞങ്ങൾ കഴിയുന്നത് അതുകൊണ്ട് ഏത് പ്രതിസന്ധി ഉണ്ടായാലും എന്ത് ജോലി ഉണ്ടായാലും സ്കൂളിലാകട്ടെ വേറെ വിദേശ വിദേശത്താകട്ടെ എവടെപ്പോയാലും എന്ത് കാര്യം ചെയ്താലും അതിനോടുകൂടെത്തന്നെയാണ് ഞാൻ അതിനോടുകൂടെത്തന്നെ ഞാനീ പാട്ടിനെയും മുന്നോട്ട് കൊണ്ടുപോവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് എൻ്റെ ജീവിതകാലം മുഴുവൻ ഈ പാട്ട് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും അതുകൊണ്ട് പാട്ട് ഏത് പ്രതിസന്ധി ഉണ്ടായാലും പാട്ടിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആഗ്രഹത്തോടുകൂടിത്തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അതോടൊപ്പംതന്നെ എൻ്റെ കൂടെയുള്ള കൊച്ചുകുട്ടികൾ അയൽവക്കത്തൊക്കെയുള്ള കുട്ടികൾക്ക് പോലും പാട്ടിനെപ്പറ്റി എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ആ കുട്ടികളെ പാട്ട് പഠിപ്പിക്കാറുണ്ട് പാട്ട് പഠിപ്പിക്കുന്നത് എനിക്കേറ്റവും ഇഷ്ടകരമായൊരു കാര്യമാണ് അതുകൊണ്ട് പാട്ട് എല്ലാവരെയും പഠിപ്പിക്കണമെന്ന് ഞാനാഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ പാട്ട് നല്ലരീതിയില്ത്തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും ഞാനാഗ്രഹിക്കുന്നു അതുകൊണ്ട് പാട്ട് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങള് എൻ്റെ ജീവിതത്തിലുണ്ടായി ഉണ്ടാവുകയുള്ളു അങ്ങനെയാണ് പാട്ടുമായിട്ട് ഞാൻ മുന്നോട്ട് പോവുന്നത് പാട്ടില് ഏത് സ എവിടെയെങ്കിലും പാടാനൊരവസരം കിട്ടിയാൽ അത് ഞാൻ ഒഴിവാക്കി കളയാറില്ല എല്ലാ ജനങ്ങളോടൊപ്പം തന്നെ എല്ലാവരെയും സന്തോഷിപ്പിക്കത്തക്ക രീതിയിൽത്തന്നെ പാട്ട് പാടുവാൻ ഞാനാഗ്രഹിക്കാറുണ്ട് അത് ജഗദീശൻ അതിന് അനുവദിക്കാറുണ്ട് അങ്ങനെയാണ് പാട്ട് പാടുന്നതും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഈ പാട്ടിൽനിന്ന് പുറകോട്ട് മാറാൻ ഞാൻ ആഗ്രഹുക്കുന്നില്ല ഏത് പ്രതിസന്ധിയെയും മുന്നോട്ട് നിർത്തിക്കൊണ്ട് ഈ പാട്ടിനെ എത്രയും നല്ല രീതിയില് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് എൻ്റെ ജീവിതത്തില് ഏറ്റവും സുപ്രധാനമായൊരു ഘടകം എന്ന രീതിയില് ഞാനീ പാട്ടിനെ മുന്നോട്ട് കൊണ്ടുപോവുന്നു എത്ര പാടുപെട്ടാലും പാട്ട് എൻ്റെ ജീവിതത്തില്നിന്ന് ഞാൻ ഒഴിച്ചു മാറ്റിക്കളയാറില്ല അതുകൊണ്ട് പാട്ടിനെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു